ഹലോ ഇത് ബുഹാരി റെസ്റ്റോറന്റ് അല്ലേ ആ ഞാൻ കഴക്കുന്നം വൈഷ്ണവ ഹൗസിൽ നിന്ന് അർച്ചന ആണേ വിളിക്കുന്നത് ആ എനിക്കൊരു പത്ത് പേർക്കുള്ളൊരു ചായ ഓർഡർ ചെയ്യാനാണ് വിളിച്ചത് ഓ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ളതൊന്നും ഞങ്ങളിവിടെ വാങ്ങിച്ചു വെച്ചിട്ടില്ല അവരൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഓ നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സാധനം ഇവിടെ എത്തിക്കണം ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് റെഡി ആക്കി വയ്ക്കാനാണ് ആ കഴിവതും സ്റ്റീൽ ഇതിൽ കൊണ്ട് വരരുത് കേട്ടോ ആ നല്ല ചൂട് നിലനിൽക്കുന്ന ഫ്ലാസ്കിലോ മറ്റോ കൊണ്ടു വരുന്നതായിരിക്കും നല്ലത് ആ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓ ലൊക്കേഷൻ എന്ന് പറയുമ്പം നമ്മൾ ആ കഴക്കുന്നം എസ് ൻ ഡി പി മന്ദിരം ആ അവിടുന്ന് ആ റൈറ്റ് സൈഡിൽ ഒരു കാണിക്ക വഞ്ചി ഉണ്ട് ആ ആ വന്നിട്ടുണ്ടല്ലേ ഇതിന് മുൻപ് ആ ആ അതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നാലാമത്തെ ഒരു റോസ് പെയിന്റ് അടിച്ച വീടാണേ ഓ ഓ ആ അത് മതിയാവും ഉം പത്തു പേർക്ക് പത്തുപേർക്കുള്ളത് മതി ആ ഗ്ലാസും കൂടെ അറ്റാച്ച്ഡ് ആണെങ്കിൽ അത്രയും നല്ലത് ഓ നാലാമത്തെ വീട് നാലാമത്തെ നാളെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു കോഫി കുടിക്കാനായിട്ട് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ആ അല്ല അവിടത്തെ കോഫിയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് അന്നേ ഞങ്ങൾ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സമയം കിട്ടിയില്ല അപ്പോൾ നാളെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുപാട് പേർ ഒരു ഏഴെട്ട് പേർക്ക് അകത്തുണ്ട് ആ അവിടെ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഇല്ല ഇല്ല ഇല്ല അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആണ് വരുന്നത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനകത്ത് എത്തിച്ചാലും മതിയാവും

ഓ കറക്ട് അവിടുന്ന് തേ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചാൽ മതിയാവും

മുകളിലോട്ട് ആ മുകളിൽ വന്ന് നിൽക്കാം അവിടെ വെളിയിൽ ഇറങ്ങി നിൽക്കാം ഓ പാക്ക് ഇഷ്ടമായിരിക്കണം ചൂട് കറക്റ്റ് നിൽക്കണം കേട്ടോ കാരണം അവർ ഒരുമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ എത്തുന്നത് അപ്പോൾ കറക്റ്റ് അവർക്ക് കൊടുക്കാനായിട്ടാണ് ആ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കേ ശരി ശരി